എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം ഉള്ളിവട ആണ് ഉള്ളിവട എന്നു പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുക നല്ലൊരു ലഘുഭക്ഷണം ആയിട്ടാണ് എനിക്ക് തോന്നിയത് നാല് മണി പലഹാരം അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് കഴിക്കുന്ന പലഹാരം ആണ് ഉണ്ടാക്കാൻ ആണ് എനിക്ക് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ അതായത് ഉള്ളി നമ്മളിങ്ങനെ അരിയുക അരിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഞെരടി ഞെരടി എന്താ പറയുക ഉള്ളി എല്ലാം വേർപെടുത്തുക ഉള്ളിയെന്ന് പറഞ്ഞാ സവാള എന്ന പറഞ്ഞു കാണാം നമ്മുടെ നാട്ടിൽ സവാള എന്ന് പറയും ചില നാട്ടിൽ ഉള്ളി എന്നും പറയും എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കടലമാവ് മൈദയും എല്ലാം കൂടെ ഇട്ടിട്ട് കുഴയ്ക്കുക പിന്നെ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പരുവം ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെക്കുക വെച്ചതിന് ശേഷം നമ്മള് മെല്ലെ പരത്തി കൊടുത്തത്തിന് ശേഷം എണ്ണ ചൂടായിട്ടുണ്ടാവും എണ്ണയിലേക്ക് നമ്മൾ മെല്ലെ ഒഴിക്കുക എന്താ പറയാ ഈ സാധനം ഇത് പരത്തി വെച്ച ഉള്ളിവട പോലെ ഇരിക്കുന്ന സാധനം അതിനകത്തേക്ക് ഇടുക ഇട്ടു കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാ അത് ഒന്ന് വേകാൻ വേണ്ടിട്ട് ലോ ഫ്ലേമിൽ നമ്മൾ ഇട്ടുവെക്കണം എന്നിട്ട് വെന്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാ അത് കോരുക അങ്ങിനെ അഞ്ച് ആറെണ്ണം നമ്മൾ കോരി എടുക്കുക ഒരു ടൈമിൽ തന്നെ രണ്ട് മൂന്നെണ്ണം ഇടുക എന്നിട്ട് രണ്ട് മൂന്നെണ്ണം കോരി എടുക്കാം കോരി എടുത്ത ഇതിങ്ങനെ ആണ് ഉള്ളിവട ഉണ്ടാക്കുക ഒരു ലഘു ഭക്ഷണം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം ആണ് പിന്നെ പലതരം കടികൾ ഉണ്ട് പക്ഷേ ഇതാണ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒന്നാമത്തെ കടി